നമ്മുടെ നാട്ടിൽ സാങ്കേതിക വിദ്യയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നങ്ങളെന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അതായത് പിന്നെ ഫോൺ നെറ്റ് ഇങ്ങനത്തെയൊക്കെയാണ് മെയിനായിട്ടുള്ള സാങ്കേതിക വിദ്യായെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് നെറ്റ് കിട്ടാണ്ടുള്ള അവസ്ഥകളൊക്കെ വരുന്നുണ്ടാകും ചിലവർ ഇപ്പം എല്ലാവരും ഓൺലൈൻ വർക്ക് ഹോം ടു ഹോം വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പം മെയിനായിട്ട് നെറ്റ് കിട്ടാത്ത അവസ്ഥയാണിവിടെ ഉള്ളത് ഇതൊക്കെയാണ് പ്രധാന വെല്ലുവിളികൾ അപ്പം എല്ലായിടത്തും നെറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെക്കാലത്ത് ഇങ്ങനത്തെ ഈ നെറ്റും അതായത് മൊബൈൽ ഫോണൊന്നും ഇല്ലാണ്ട് ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത് ഇവിടുത്തെ അവസ്ഥയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്